കേരളത്തിലെ വിവസായങ്ങൾക്ക് നല്ല ഒരു വളർച്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ തന്നെ കണ്ടാലറിയാം ഒരുപാട് കമ്പനികൾ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ പുതിയ കമ്പനികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളുടെ ഗവൺമെൻറ്റ് ഒരുപാട് സ്റ്റാർട്ടപ്പ് മിഷൻസും നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കമ്പനികൾക്ക് കമ്പനികൾ തുടങ്ങാനായിട്ട് ഒരുപാട് വായ്പകൾ കുറഞ്ഞ പലിശയിൽ ഓരോ ബോർഡുകളുടെ കീഴിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കോർപ്പറേഷൻ അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അതുവഴി ആൾക്കാർക്ക് പുതിയ പുതിയ കമ്പനി തുടങ്ങാനും ബിസിനസ്സ് തുടങ്ങാനും വേണ്ടിയിട്ട് നമ്മളുടെ സർക്കാര് തന്നെ കുറഞ്ഞ പലിശാ നിരക്കിൽ വായ്പ അനുവദിക്കുന്നുണ്ട് കേരളത്തിൽ വ്യവസായം വളർത്താൻ വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ടെക്നോളജി ഡെവലപ്മെൻറ്റും സർക്കാർ ഇപ്പോൾ നടത്തുന്നുണ്ട് നമുക്ക് ഇപ്പോൾ കണ്ടാലറിയാം അതായത് നമ്മളുടെ കേരളത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നമ്മളുടെ വ്യവസായം കൂടി കൂടി വന്നാല് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖം തന്നെ മാറ്റി മറിക്കുന്ന ഒന്നാണ് കാരണം കേരളത്തിൽ കൂടുതൽ കമ്പനികൾ വന്നാൽ വ്യവസായം വന്നാൽ അവിടത്തെ തൊഴിലില്ലായ്മ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും മാത്രവുമല്ല കമ്പനികൾ വരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് നല്ല ഒരു സ്റ്റാഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ഡെവലപ്മെൻറ്റ് കൂടുകയും ചെയ്യും അതായത് നമ്മൾക്കറിയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിളിറ്റി എന്നുള്ള ഒരു കാര്യം അതായത് എല്ലാ കമ്പനിയും കൃത്യമായിട്ട് ചെയ്ത് ചെയ്യേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഈ സോഷ്യൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിളിറ്റി എന്നുള്ളത് അതെന്ന് പറയുന്നത് ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സ് മോഡലാണ് അതായത് ഒരു കമ്പനിക്ക് ആ കമ്പനിയോട് അല്ലെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ആ കമ്പനി യുടെ ഉടമസ്ഥരോട് മാത്രമല്ല റെസ്പോൺസിബിളിറ്റി എന്ന് പറയുന്നത് ആ കമ്പനി ഇരിക്കുന്ന ചുറ്റുപാടോ ചുറ്റുപാടിലും അതുപോലെ തന്നെ അവിടത്തെ സമൂഹത്തിലും കൂടെയാണ് അതായത് സമൂഹത്തിലെ വിവിധ വശങ്ങൾ മെച്ചപ്പെടുത്താനും അതിലൂടെ കമ്പനിക്ക് ഒരു നല്ല ഒരു ഇമേജ് ഉണ്ടാക്കാനും അതിലൂടെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ കോർപ്പറേറ്റ് അല്ല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിളിറ്റി യിലൂടെ നമുക്ക് എന്താ ഒരു കമ്പനിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ പരിസ് പരിസ്ഥിതി സംരക്ഷണം ചെയ്യാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം അങ്ങനെ ഒരുപാട് അതായത് ഇപ്പോൾ ഒരു കമ്പനി ഇരിക്കുന്ന ചുറ്റുപാടില് നമുക്കറിയാം അവര് ചിലപ്പം നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് ബ്രിഡ്ജ് വെച്ചു കൊടുക്കുന്നുണ്ട് റോഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞത് പോലെ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ മരം നടുന്നുണ്ട് ഓരോ കമ്പനികൾ അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ചികിത്സാസഹായം കൊടുക്കുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലില് ഡൊണേഷനായിട്ട് കുറെ പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിലിപ്പോൾ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കമ്പനി ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസ് കൊണ്ടു വരാനായിട്ട് കേരളം ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളം ഇന്ന് ഏറ്റവും ഉയർന്ന തട്ടിലാണ് നിൽക്കുന്നത് വ്യവസായം എന്ന് പറയുന്ന ഒരു സെക്റ്ററിൽ ഏറ്റവും ഉയർന്ന തട്ടിലാണ് നമ്മളുടെ കേരളം ഇപ്പോൾ നിൽക്കുന്നത് കേരളം പുതിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഐ ടി പാർക്കുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരുപാട് കമ്പനീസ് നമുക്ക് കാണാം വളർന്നു വരുന്ന കമ്പനീസിനെ നമക്ക് കാണാം അവര് ഒരു ഒരുപാട് നമ്മൾക്ക് സഹായിച്ചിട്ടുമുണ്ട് നമ്മുടെ ഫ്ലഡ് വന്ന സമയത്ത് അതായത് നമ്മളുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരുപാട് കമ്പനികൾ സഹായിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പ്രാദേശിക സമൂഹം ഒരുപാട് വളർന്നു വരികയാണ് അതായത് കേരളത്തിൻ്റെ വ്യവസായികൾക്ക് നല്ലൊരു വളർച്ചയാണ് ഇപ്പം കാണുന്നത്